പ്രധാനമായിട്ട് നമ്മൾ ഞാൻ ജന്മ ബർത്ത് ഡേയാണ് ആഘോഷിക്കുന്നത് അപ്പം എനിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് അപ്പം അവളെ ഫസ്റ്റ് ബർത്ത് ഡേ നല്ല നല്ല രീതിക്കു തന്നെ ആഘോഷിച്ചു ഞങ്ങളന്ന് കപ്പ ബിരിയാണി ആണ് ഉണ്ടാക്കിയത് അപ്പം തലേന്ന് കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിറ്റേന്നാണ് ഇറച്ചിയൊക്കെ വാങ്ങിച്ചത് അപ്പം ചേട്ടായിയുടെ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ റിലേറ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ളവരും തലേന്നൊക്കെ റിലേറ്റീവ്സൊക്കെ വന്നു അന്നിട്ട് ആ ചേട്ടായിയുടെ കൂട്ടുകാരൊക്കെ വന്ന് പടുതെ ഇങ്ങനെ ടാർപ്പായ്യൊക്കെ വലിച്ചു കെട്ടി പിന്നെ ഡസ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു ഭയങ്കര നല്ല സെറ്റപ്പായിരുന്നു അപ്പം ഈ ബർത്ത് ഡേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഡെക്കറേഷൻ സാധനങ്ങളും പിന്ന കേക്കിന് ഓർഡർ കൊടുക്കലും പിന്നെ കപ്പ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ ഇതെല്ലം വാങ്ങി എന്നിട്ട് തലേന്ന് തന്നെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ കുറച്ചൊക്കെ ചെയ്തായിരുന്നു അതിന് ശേഷം അതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ കപ്പയൊക്കെ കൊണ്ട് വന്നായിരുന്നു അതെല്ലാം തലേന്ന് കപ്പയൊക്കെ കൊണ്ട് വന്നായിരുന്നു പിന്നെ അതൊക്കെ കഴു പൊടിച്ച് കുത്തി വൃത്തിയാക്കി കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചു ഇറച്ചി അതുപോലെതന്നെ കഴുകിയൊക്കെ സെറ്റാക്കി വെച്ച് പിന്നെ അടുപ്പൊക്കെ ഇട്ട് പിന്നെ എൻ്റെ എൻ്റെച്ഛനാണ് പാചകം ചെയ്തത് അപ്പം ഞാൻ പിന്നെ കൂടെ ആ ഞങ്ങളും കൂടി ഓരോ സാധനങ്ങളൊക്കെ അരിയാനും വറക്കാനൊക്കെ പിന്നെ എട്ടായിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ കപ്പ ബിരിയാണിക്കുള്ള കപ്പേക്കെ അടുപ്പേ വെച്ച് എറച്ചിക്കറിയൊക്കെ വെച്ച് രണ്ടും നല്ല സെറ്റാക്കിയെടുത്തു അപ്പം ഇളക്കാനൊക്കെ ആയിട്ട് ചേട്ടായിയുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അപ്പം പിന്നെ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയെടുത്തു വൈകീട്ടൊരു നാലു മണിക്ക് ശേഷമായിരുന്നു കേക്ക് മുറിയൊക്കെ വെച്ചിരുന്നത് അപ്പം അത്യാവശ്യം ബന്ധുക്കാരും പിന്നെ അയൽവക്കത്തുള്ളവരും ഫ്രണ്ട്സും ആയിട്ടുള്ള എല്ലാവരൊക്കെ വന്നപ്പോഴത്തേക്കും കുഞ്ഞിന് പാവയുടെ മറ്റേ സിൻഡ്രലയുടെ ഇതിലുള്ള കേക്കായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് പിന്നെ കുറേ ഡെക്കറേഷനൊക്കെ അപ്പം അതൊക്കെ ചെയ്തായിരുന്നു എന്നിട്ട് കുഞ്ഞിനെയും കൂട്ടി ഞാനും ഹസ്ബൻറ്റും കൂടി കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും കൊടുത്തു എന്നിട്ട് കപ്പ ബിരിയാണിയുടെ വരുന്നവർ വരുന്നവർ ആൾക്കാരിങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒരു ബഹളവും പിന്നെ കുഞ്ഞു പിള്ളാരൊക്കെ വരുമ്പോൾ ഓടി നടക്കുന്നു അങ്ങോട്ടോടും അങ്ങനെ ആൾക്കാരൊക്ക വന്നു ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി കൊണ്ടു തരുന്നു ഞാൻ കൊണ്ട് വെക്കുന്നു എന്നിട്ട് എല്ലാവരും ആഹരമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നവരൊക്കെ വരുമല്ലോ വിളിക്കുക നമ്മൾ വിളിക്കുമ്പോൾ ബന്ധുക്കാരാണെങ്കിലും അങ്ങനെ വരാതിരുന്ന് പെട്ടെന്നൊക്കെ വരത്തില്ലേ അവരോടൊക്കെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തരെല്ലാം വിശേഷങ്ങളെല്ലാം സംസാരിച്ചിരുന്ന് ആഹാരമെല്ലാം കഴിച്ച് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും പോയി പോയതിനു ശേഷം അൺബോക്സിങ്ങാണ് അപ്പോരോ കുഞ്ഞിന് കിട്ടിയ ഓരോ ഗിഫ്റ്റ് വാക്കറുകൾ പിന്നെ സൈക്കിൾ ഡ്രസ്സ് ഇഷ്ടംപോലെ ഡ്രസ്സും പുതിയ പുതിയ നമ്മൾ കണ്ടിട്ടില്ലാത്ത കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടി കുഞ്ഞിന് കാട്ടിയിരുന്നു അതെല്ലാം ഞങ്ങൾ ഓരോരുത്തർ വീട്ടിലുള്ള എല്ലാവരും കൂടി ചുറ്റും കൂടിയിരുന്ന് പൊട്ടിച്ച് എല്ലാവരെയും കാണിച്ച് അങ്ങനെ വളരെ സന്തോഷമായിട്ടൂള്ള നല്ലൊരു ബർത്ത് ഡേ ആയിരുന്നു ആഘോഷിച്ചത് അന്നെനിക്ക് ഏറ്റവും ഞാൻ എടുത്ത് ഒരിക്കലും മറക്കാൻ മറക്കാൻ ആവാത്തൊരു എന്താ നല്ലൊരു അനുഭവം ആണ് കുഞ്ഞിൻ്റെ ബർത്ത് ഡേ അതാണ് എനിക്ക് ഭയങ്കരമായിട്ടും നമ്മൾ ഓരോ ആഘോഷങ്ങളും നമുക്ക് ഭയങ്കര വലുതാണ് എന്നാലും എനിക്കിത് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പിറന്നാളാണ് കുഞ്ഞിൻ്റെ